ആ ഞാന് നേരത്തെ ബുക്കെയ്തിട്ടുണ്ടായിരുന്നില്ലേ ക്യാബ് ആ നിങ്ങളുതന്നെയാണോ ഡ്രൈവറ് ആ ഒക്കെ ഒക്കെ അല്ല നിങ്ങള് ഇത് വരെയായിട്ടും എത്തിയിട്ടില്ല ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഞാനിതാ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ട് ഞാനും ഒന്നിലെങ്കിൽ ഞാൻ ബസിൽ കയറി പൂവ പോകാൻ വേണ്ടിയിരുന്ന ഞാനാണ് കാരണം ഒര് ക്യാബ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് പോകാമല്ലൊന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ വേഗം പോകാമല്ലോന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്തേക്ക് ആ അതെ അതെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചത് പക്ഷെ നിങ്ങളിതുവരെ എത്തിയിട്ടില്ല ഞാനിത് എത്ര നേരമാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു പരിധിയില്ലേ കാരണം നിങ്ങള് പന്ത്രണ്ട് മണിയാകുമ്പോൾ വാരാന്ന് പറഞ്ഞത് ഇത് മൂന്നരയായി അല്ല മാഷെ നിങ്ങള് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാന് നമുക്കൊരു അത്യാവശ്യം കൊണ്ടാണല്ലോ നമ്മള് ബുക്കെയ്യുന്നത് അല്ല നിങ്ങള് വേറെ ഓട്ടം പോകുന്നത് ഒക്കെ നിങ്ങളുടെ ഇത് അതായത് നിങ്ങള് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസീയില് ഇഷ്ട്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് വിട്ടാൽ പോരെ ഇപ്പോൾ ഞാൻ ബുക്കെയ്തിട്ട് എനിക്കേതെങ്കിലും ഒര് വണ്ടി നിങ്ങൾ അയച്ച് തരണ്ടേ ഇതാണോ നിങ്ങളുടെ ഏജൻസീൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വേണ്ട ഇനി വണ്ടി എന്തായാലും നിങ്ങളുടെ ഞാനെന്തായാലും ഇതാ ഇവിടെ നോക്കിയിരിക്കുകയില്ല കാരണം എനിക്കിനി സമയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനെന്തായാലും വേഗം പോകാം ഇനി നിങ്ങള് വരണമെന്നില്ല വേണ്ട വേണ്ട വരണ്ട വരണ്ട